ക്യാന്സറെന്നു പറഞ്ഞ രോഗം ഒരു മാരകമായ രോഗം തന്നെയാണ് അതിനിപ്പോള് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലന്നു വരെ പറയുന്നുണ്ട് നമ്മള്ക്ക് സുഖം നമ്മളെ ലൈഫ്സ്റ്റൈല് കൊണ്ടാണ് നമ്മള്ക്ക് ക്യാന്സര് വരുന്നത് അപ്പോള് എല്ലാ ആശുപത്രിയും അതിനുള്ള സൗകര്യമില്ല സൗകര്യമുള്ളതെന്ന് പറഞ്ഞാല് മെഡിക്കല് കോളേജ് അങ്ങനുള്ള ആശുപത്രികളില് മാത്രമേ ഉള്ളൂ നമ്മളെ ചെറിയെ ചെറിയെ സ്ഥലത്തുള്ള ആശുപത്രിയിലൊരിക്കലും അതിനുള്ള സൗകര്യമില്ല ഒരിക്കലും നമ്മള്ക്കത് മനസ്സിലാവാതെ കാര്യമാണ് ഒരു വീടുകളില് വരുന്നതൊക്കെ നമ്മള്ക്ക് ഒരു ഫിസിയോതെറാപ്പിയിലൂടെയും ഡയാലിസിസിലൂടെയൊക്കെ നമ്മള്ക്കത് മാറ്റാന് കഴിയും അത് നമ്മള്ക്ക് അറിയാം അപ്പോള് ഒരുപാട് സൂചനകള് നമ്മള്ക്ക് ലഭിക്കും അപ്പോള് അത് നമ്മള് അപ്പഴേ ചികിത്സിച്ചാല് നമ്മള്ക്കത് മാറ്റി എടുക്കാവുന്നതേ ഉള്ളു അപ്പോള് നമ്മുടെയീ കൊച്ചുകൊച്ച് ആശുപത്രികളിലും അതിനുള്ള സൗകര്യമില്ല വലിയവലിയ കേരളത്തില് തന്നെയുള്ള വലിയവലിയ ആശുപത്രികളില് നമ്മള്ക്ക് പോവേണ്ടിവരും